ആരോഗ്യകരമായ ഒരു ജീവിതമാണ് നമ്മൾ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ആരോഗ്യകരമായ രീതിലുള്ള കളികളെക്കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്താൻ സാധിക്കുന്നതാണ് ആരോഗ്യകരമായ കളികൾ നമുക്ക് ജിമ്മിൽ പോയി നമുക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഔട്ട് ഡോർ ഗെയിംസിൽ ഏർപ്പെട്ട് നമുക്ക് ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട് ബോൾ എന്നിവ പോലുള്ള കളികൾ കളിച്ചും നമുക്ക് ആരോഗ്യം നില നിർത്താൻ പറ്റുന്നതാണ് നമ്മൾ പുറത്തു പോയി കളിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അതായത് ബാക്കി പുറത്തെ ബാഹ്യ ആരോഗ്യത്തെ മാത്രമല്ല അകത്തുള്ള മെൻ്റൽ ആരോഗ്യത്തെയും നമുക്ക് പരിപോഷിപ്പിക്കുവാൻ സഹായിക്കുന്നുണ്ട് ജീവിത നിലവാരത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ആരോഗ്യമുള്ള മനസ്സ് അതിൽ ഉണ്ടാകൂ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു ജീവിത നിലവാരത്തെ നമുക്ക് ഉയർത്തി എടുക്കാനുള്ള ആ ഒരു ശക്തി നമുക്ക് ഉണ്ടാകൂ